ശുദ്ധജലത്തിനായി നമ്മുടെ വിവിധ ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്നു ആദ്യകാലങ്ങളിൽ നമ്മുടെ പുഴ തോട് കുളങ്ങള് എന്നിവയെ ആണ് ജലത്തി ശുദ്ധജലത്തിനു വേണ്ടി ഉപയോഗിച്ചത് സമയം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളില് മാറ്റം വന്നു പിന്നീട് നമ്മൾ കിണറുകൾ കുഴിക്കാന് തുടങ്ങി വളരെ ആഴത്തില് കുഴിച്ച് കുഴികളില് നിന്ന് നമ്മൾ ശുദ്ധജലങ്ങള് സ്വീകരിക്കാന് തുടങ്ങി കിണറുകളില് നിന്ന് വെള്ളമെടുക്കാന് വേണ്ടി കപ്പിയും കയറുമാണ് ഉപയോഗിച്ചിരുന്നത് ഈ കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരുന്നത് ആയാസമുള്ള ജോലികളാണ് പൊതുവേ സ്ത്രീകളാണ് ഇത്തരത്തിൽ വെള്ളം ശേഖരിക്കുന്നത് പണ്ടു കാലങ്ങളിൽ നമുക്ക് ജലസ്രോതസ്സുകൾ വീടിന്റെയടുത്ത് കുറവായതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് പോയി വെള്ളം കോരി കൊണ്ട് വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കിണറുകളും നിര്മിച്ചു തുടങ്ങിയത് കിണറുകളിൽ നിന്ന് നമ്മൾ കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരുകയാണ് ചെയ്യുന്നത് പിന്നീട് ജോലിഭാരം കുറക്കുന്നതിന് വേണ്ടി മോട്ടോറുകൾ കണ്ടെത്താന് കണ്ടുപിടിച്ചു ഇപ്പോൾ ഇലക്ട്രിക്ക് മോട്ടോർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളം കിണറുകളിൽനിന്ന് എടുക്കുന്നത് ഇലക്ട്രിക്ക് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം ഒരു ടാങ്കില് ശേഖരിച്ചു വെക്കുന്നു ആവശ്യാനുസരണം ടാപ്പ് വഴി നമ്മൾ ആ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക്ക് മോട്ടോര് എല്ലാ സമയത്തും നമുക്കുപയോഗിക്കാന് പറ്റിയൊരു സാധനമല്ല കാരണം ഇത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തില് പ്രവര്ത്തിക്കുന്ന ഒന്നായതിനാല് കറണ്ടില്ലാത്ത സമയങ്ങളില് നമുക്കിതുപയോഗിക്കാന് കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ കപ്പിയും കയറും ഉപയോഗിക്കേണ്ടാതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇലക്ട്രിക്ക് മോട്ടോറുകൾ നമുക്ക് പൂര്ണമായിട്ടും എപ്പ എല്ലാ സമയത്തും ആശ്രയിക്കാന് പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോള് ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാലം മാറിയതനുസരിച്ച് കിണറുകള്ക്ക് പുറമേ കുഴല്കിണറുകള് ആളുകള് ഉപയോഗിക്കാറുണ്ട് അവിടെയൊന്നും മോട്ടോര് ഉപയോഗിച്ചാണ് നമുക്ക് വെള്ളമെടുക്കാന് പറ്റുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇലക്ട്രിക്ക് മോട്ടോറുകൾ നമുക്ക് പൂര്ണമായിട്ടും ആശ്രയിക്കാന് കഴിയില്ല കാരണം ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ പ്രവര്ത്തിക്കുന്നതു കൊണ്ട് തന്നെ നമുക്കെപ്പോഴും കറണ്ടുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാന് പറ്റുള്ളൂ